ഹലോ സ്കൂള് പ്രിന്സിപ്പള് ആണോ നമ്മളിവിടെ കോയമ്പത്തൂരിൽ നിന്ന് വിളിക്കുന്നതാണേ അപ്പം ഞാന് ഒരു ഗവണ്മെന്റ് എംപ്ലോയി ആയിരുന്നു അപ്പം എനിക്കിപ്പോൾ ട്രാന്സ്ഫര് കിട്ടിയേക്കുന്നത് കോഴിക്കോട് ആണ് അപ്പം കുട്ടിക്കിപ്പം അഞ്ചാം ക്ലാസിലാണ് പഠിക്കുന്നത് ഇപ്പം പകുതിയോളം ആയില്ലേ അപ്പം അവിടെ ചേര്ക്കാന് പറ്റുവോ എന്ന് അറിയാന് വേണ്ടിയായിരുന്നു മ് ഇംഗ്ലീഷ് മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആണ് ഇംഗ്ലീഷ് മീഡിയം ആണ് ആ ആ മ് ആണല്ലേ മ് ആഹാ ആണല്ലേ എന്നാൽ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ പെട്ടെന്ന് വരാന് നോക്കാം ഇവിടെ കുറച്ച് പേപ്പറും കാര്യങ്ങളും ഒക്കെ റെഡി ആവാനുണ്ടേ അപ്പം ആ അപ്പം ഞാനേ ഇവളുടെ ഡീറ്റയില്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഒരു അഡ്മിഷന് എടുത്തു വയ്ക്കൂ ഞാന് ക്യാഷ് ഒക്കെ ഗൂഗിള് പേ ചെയ്തു തരാം ആ ഓകെ ഓകെ ടി സി ഒക്കെ കൊണ്ടു വരാം മ് വേറെ പിന്നെ ഞങ്ങൾ വരുന്ന ടൈമിൽ എന്തായാലും നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ അതായത് നിങ്ങൾ കഴിഞ്ഞു പോയ നമ്മുടെ പോര്ഷന് എന്തായാലും വ്യത്യാസം ഉണ്ടാവും ഇവിടെ കോയമ്പത്തൂരിലെയും അവിടത്തെയും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ കഴിഞ്ഞു പോയ പോര്ഷന് ഒക്കെ നിങ്ങൾ ജസ്റ്റ് പിന്നെ എടുത്ത് തരുവോ കുറച്ച് പറഞ്ഞു കൊടുക്കുവോ മ് ആണ് അല്ലേ എത്രയാണ് അപ്പം റേറ്റ് വരുന്നത് എത്രയാണ് മ് ആണല്ലേ

മ് അപ്പം നമുക്ക് ഇവിടെ ഇവിടെ സിക്സ്റ്റി തൗസന്റ് ആയിരുന്നു ഒരു വര്ഷത്തേക്ക് അപ്പം അവിടെ എത്രയാണെന്ന് അറിയാന് വേണ്ടിയായിരുന്നു ചോദിച്ചത് അറുപതിനായിരം ഓക്കെ അതൊന്നും കുഴപ്പം ഇല്ല റേറ്റ് ഒന്നും

ആ എന്നാൽ ആയിക്കോട്ടെ ആ ഓകെ ആ ഞാനെന്നാൽ വാട്ട്സ്ആപ്പ് ചെയ്യാം ഈ നമ്പരില് അല്ലേ വാട്ട്സ്ആപ്പ് ഉള്ളത് ആ ഓകെ ഓകെ